ഹലോ ഞാൻ പിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പറയുക വീട്ടിൽ നിന്ന് വിളിക്കുവാണ് പിന്നെ ചേച്ചി നമുക്ക് ഉണ്ടല്ലോ ഇപ്പോൾ എന്നാന്ന് വെച്ചാൽ കഴിഞ്ഞദിവസം വന്നപ്പം എനിക്ക് പറയാൻ പറ്റിയില്ല അപ്പം ഇന്നലെ ഇന്നലെ രാവിലെയാണ് ഞാൻ ടെസ്റ്റ് ഒക്കെ എടുത്തേക്കുന്നത് ബ്ലഡിന്റെ ഒക്കെ അപ്പോൾ എടുത്തപ്പം ഇച്ചിരി ഷുഗർ ഇച്ചിരി കൂടുതലാണ് അപ്പോൾ പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലൊരിച്ചിരി ഡയറ്റ് പ്ലാനൊക്കെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നല്ലതായിരിക്കും ചേച്ചി കുക്ക് ചെയ്യുമ്പോൾ അപ്പോൾ മ്മ് ആ അത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ആര് ആ ഒരാൾക്ക് തുടങ്ങി പിൻ ആണ് ആണ് ആ ഷുഗർ ഇച്ചിരി കൂടുതൽ ഉണ്ട് അപ്പോൾ ഒരാൾക്ക് തുടങ്ങിയപ്പം ആദ്യം മറ്റേ എൻ്റെ കസിനുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ പിന്നെ പോട്ടെ കുഴപ്പം ഇല്ല എന്ന് വിചാരിച്ചു ഇപ്പോൾ പിന്നെ ഇപ്പോൾ രണ്ട് പേർക്കുംകൂടെ ആയി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഇപ്പം ഇന്ന് തന്നെ ചേച്ചിയെ വിളിച്ച് പറയാം അല്ലേൽ നാളെ വരുമ്പോൾ അരി കൂടുതൽ ഇടുകയില്ലേ അപ്പം അതുകൊണ്ട് അരിവേണ്ട ഉച്ചയ്ക്ക് നമുക്ക് സാലഡോ അങ്ങനെയെന്തെങ്കിലും രാവിലെ അങ്ങനെ ഞാനെന്തെങ്കിലും ഓട്സ് എന്തെങ്കിലും വെച്ചിട്ട്

ആഹാ മ്മ് ആ ആ പിന്നെ

അതെന്താണ് എന്തൊക്കെ വേണമെന്നുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ മതി ആ അത് ആ ആ അത് തന്നെ അത് തന്നെ ആ എൻ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ജോലിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ നോക്കത്തില്ല കുറച്ച് കാലം കൊണ്ടിങ്ങനെ ഡയറ്റൊക്കെ നോക്കുന്നില്ലായിരുന്നു പിന്നെ ചുമ്മാ ഷുഗറൊക്ക കൂടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് ഇപ്പം തന്നെ വിളിച്ച് പറയാം അല്ലെങ്കിൽ നാളെ റൊട്ടീൻ ആയിട്ട് ഞാൻ കാണത്തില്ല രാവിലെ രാവിലെത്തന്നെ ഞാൻ എനിക്ക് ഈ നേരത്തേ പോകാനുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ വിളിച്ച് പറയുന്നതാണ് അപ്പോൾ വീട്ടിൽ ഇവിടെ ഉള്ള ആൾക്കാണെങ്കിൽ പോലും അങ്ങനെ മെയ്ൻറ്റെയ്ൻ ചെയ്ത് പോകും ഡയറ്റ് ഇതിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് പാടായിരിക്കും പിന്നെ ആ നമുക്ക് പൈസയുടെ കാര്യത്തിലൊന്നും നമുക്ക് പ്രശ്നമില്ല എന്താ നമ്മുടെ ആരോഗ്യം മസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കണം അപ്പം അത് നോക്കുക പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം സ്പെഷ്യൽ ഡേ ആരെങ്കിലുമൊക്കെ വരുന്നതാണെങ്കിൽ നമുക്ക് മാറ്റാം ആ അതെ ആ അതെ അത് നോക്കാം അല്ലാത്തപ്പോൾ മ്മ് മ്മ് ആ

ആ അത് കുഴപ്പം ഒന്നുമില്ല അത് ഇനി എപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ മതി എപ്പോഴാണെന്നും എന്തൊക്ക വേണമെന്ന് ഉള്ളതും നാളെയൊരു ലിസ്റ്റിട്ട് തന്നാൽ മതി നാളെ ഞാന് ഓഫീസിൽ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് ആ

ആ ഓക്കെ ഓക്കെ ആ ആ

മതി മതി മതി ചപ്പാത്തി മതി പിന്നെ ഒരു ഒന്നോ രണ്ടോ എന്തെങ്കിലും ഒക്കെ ഇച്ചിരി ചെറിയ കറി ഉണ്ടാക്കിയതും പിന്നെ ചെറിയ വെജിറ്റബ്ളും കൂടെ ഉണ്ടായാൽ മതി ഒത്തിരി രാത്രിയങ്ങനെ ആ അങ്ങനെ എടുക്കാറില്ല ക്ഷീണം ആകാതെ നോക്കണമെന്ന് പറഞ്ഞു

പറ്റിയിട്ടില്ല ആ അത് ഇടണ്ട ഒട്ടും ഇടണ്ട ഒട്ടും ഇടണ്ട ഇടാതെ തന്നെ എടുക്കാം മ്മ് അങ്ങനെ കുഴപ്പമൊന്നും ഇല്ല ആ മതി മതി ജൂസൊക്കെ കുടിച്ചാൽ കുഴപ്പമില്ലാതെ അത് ചെയ്യാം മ്മ് മ്മ് ആ അങ്ങനെ ചെയ്യാം ആ ശരി ശരി താങ്ക്യൂ താങ്ക്യൂ ഹാ ഹാ അപ്പം ഞാൻ നാളെ വരുമ്പോൾ കാണത്തില്ല നമുക്ക് പിന്നെ വൈകിട്ട് ഞാൻ എത്തുമ്പോൾ പറയാം മ്മ് ശരി എനിക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി എന്തൊക്കെ ലിസ്റ്റ് വേണമെന്നുള്ളത് ശരി ശരി ആ ശരി